ആറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ആറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പത്ത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ്